ആ ഹലോ എങ്ങനെയുണ്ട് അലൻ ചെറിയാൻ എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം

കുഴപ്പമില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അവൻ്റെ ക്ലാ ആ ആ അവൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനായിരുന്നു അവൻ്റെ ക്ലാസ് ടീച്ചർ പക്ഷേ അവൻ ഭയങ്കര ഉഴപ്പൊക്കെ ആയിരുന്നു അവൻ ക്ലാസിൽ അങ്ങനെ വരില്ലായിരുന്നു പിന്നെ അവൻ ഭയങ്കര ഉഴപ്പാണ് പക്ഷേ ഇപ്പം കുഴപ്പമൊന്നും ഇല്ല അല്ലേ ഇല്ല ആ ആ അവൻ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എന്ത് പറ്റി എന്ന് അറിയില്ല അങ്ങനെ അവന് ഉഴപ്പ് വരാൻ എന്ത് പറ്റിയെന്ന് അറിയില്ല അവൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും എന്താണെന്ന് അറിയില്ല അങ്ങനെ ഇല്ല അല്ലേ ആ അത് ശരി ആ അങ്ങനെ ഞാൻ അപ്പോൾ ഓർത്തു അവന് ഭയങ്കര മോശമായിരിക്കും എന്നൊക്കെ ഓർത്തു ഇപ്പം പക്ഷേ അങ്ങനെയൊക്കെ കുഴപ്പം ഇല്ല ആ അവൻ കൊ പഠിക്കുന്നു എന്നൊക്കെയാണ് അവൻ്റെ പേരൻറ്സ് പറഞ്ഞത് നമുക്കത് അറിയില്ല പക്ഷേ അന്നേരം ഇവിടെ കിടന്ന് ഭയങ്കര ഉഴപ്പായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവൻറെ പേരൻറ് പറയുന്നുണ്ട് വീട്ടിലിരുന്ന് പഠിക്കുന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാ കഴിഞ്ഞ പ്രാവശ്യം ആണല്ലേ ആ ആ അവൻ്റെ പേരൻറ് അങ്ങനെയൊക്കെ പറഞ്ഞു ആ ആണ് ആ അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നോ പേരൻറ് പിന്നെ വിളിച്ചിരുന്നോ വിളിച്ചു ആ ആ എന്നിട്ട് എന്ത് പറഞ്ഞു അവർ

ആ ആ അങ്ങനെ പിന്നെ ഓരോ പ്രായത്തിൻ്റെ കാണുമെന്നേ പിള്ളേർ ഉഴപ്പ് പിള്ളേർ കൂട്ടുകെട്ടിൻ്റെ ഒക്കെ വരുമായിരിക്കും ഓരോ കൂട്ടുകെട്ടല്ലേ പിള്ളേരെ ഇതാക്കുന്നത് ഞാൻ പറഞ്ഞൊക്കെ കൊടുത്ത് കാണുമായിരിക്കും നല്ല രീതിയിൽ

ഓക്കെ എന്നാൽ ശരി ഓക്കെ എന്നാൽ ഓക്കെ ഓക്കെ